എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മൃഗം എന്നു വച്ചു കഴിഞ്ഞാൽ പട്ടിയാണ് ഒന്ന് പട്ടിയെന്നു വച്ചു കഴിഞ്ഞാൽ നമുക്ക് രാത്രി കള്ളന്മാര് അങ്ങനെയുള്ളവരൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് അറിയിക്കും കുരയും ഇതൊക്കെയാകും പിന്നെ കുറേപേർ വരാൻ പേടിക്കും എനിക്ക് ഒരു പട്ടി ഉണ്ട് നല്ല പട്ടിയാണ് പിന്നെ അതേപോലെത്തന്നെ പട്ടി നല്ല നന്ദി ഉള്ളതാണ് നമ്മളെ എവിടെ കണ്ടാലും നമ്മൾ എത്ര അടിച്ചാലുംകൂടി പിന്നെയും വാലാട്ടി പുറകേ വരും പിന്നെ പൂച്ചേനോട് ഇഷ്ടമാണ് പൂച്ചയെന്നു വച്ചാൽ എലിയിനെ ഒക്കെ പിടിക്കും നമുക്ക് അത്ര ശല്യങ്ങളുണ്ടാവില്ല നല്ലൊരു ക്യൂട്ട് ആയിരിക്കും നമുക്ക് അവറ്റുങ്ങള കളിപ്പിക്കാൻ ഒരിതായിരിക്കും അതുപോലെ തന്നെ പ്രാവും അത്ര നല്ല ഇതാണ് പ്രാവ് അങ്ങനെ കിളികൾ മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സമയം പോകുന്നത് അറിയില്ല ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാം മീനിനെ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കികൊണ്ട് നിൽക്കാം ടൈം പോകുന്നത് അറിയില്ല അതേപോലെത്തന്നെ പ്രാവുണ്ടെങ്കിൽ പ്രാവിനെ ഒക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ആ പ്രാവിനെ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ തോളത്തൊക്കെ വന്നിരിക്കും അപ്പോൾ നല്ല ടൈം പാസിംഗ് ആയിരിക്കും